ആ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഈയിടെ മാറ്റിയാരുന്നു അപ്പോള് അതാണെങ്കില് അതിൻ്റെ രേഖയൊക്കെ ഒന്ന് മാറ്റണം അപ്പോള് അത് എങ്ങനാണു സംഭവം എനിക്കാണെങ്കില് എൻ്റെ ഓൺലൈൻ പോർട്ടലിലാന്നല്ലോ ലോഗിൻ ചെയ്തിട്ട് ആ പെയ്മെൻറ്റ് അങ്ങ് ചെയ്തേക്കാം അല്ലേ പിന്നെ പുതിയ അക്കൗണ്ട് വിശദാംശങ്ങൾ ഉപയോഗിച്ച് എൻ്റെ പെയ്മെൻറ്റ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനപ്പോള് ഞാൻ എന്നാ ഒക്കെ എടുക്കണം അപ്പോള് ആധാർ കാർഡും പാസ് ബുക്കും മാത്രം മതിയോ പിന്നെ വേറെ എന്തേലൊക്കെ വേണം പിന്നെ ഈ പൈസ എൻ്റെ ഈ പൈസ കിട്ടാനായിട്ട് എത്ര നേരം എടുക്കുമായിരിക്കും പണ്ടൊക്കെയാണെന്നുവച്ചാല് എനിക്ക് നമ്മളെ വിള കൊടുത്തിട്ട് ഒരു ഒരു മാസത്തിനുള്ളിൽ പൈസ ഇട്ടുതരും പക്ഷേ ഈയിടെ ആയിട്ട് കുറച്ചധികം സമയം എടുക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു അപ്പോള് ഈ അക്കൗണ്ടിൽ ചേർന്നാല് പെട്ടെന്ന് പൈസ കിട്ടും എന്ന് ഞാനറിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചേർന്നത് അപ്പോള് ഇവിടെ പെട്ടെന്ന് പൈസ കിട്ടുമോ പിന്നെയാണെങ്കില് ഞാൻ ഈ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോള് അതിൻ്റെ കറക്ട് ആയിട്ട് സേവ് ആക്കിയോന്നൊക്കെ ഒന്ന് പറയണേ അതുകൊണ്ട് എനിക്കിപ്പോള് എനിക്കാണെങ്കില് ഇപ്പോഴത് കറക്ട് ആയിട്ട് ഒന്നറിയണം അതിനാണ്